നമ്മളൊരു മാസത്തിനുള്ള ചില്ലറ സാധനങ്ങൾ വീടിനടുത്തുള്ള കടയിൽ നിന്ന് തന്നെയാണ് വാങ്ങിക്കുന്നത് ആ ഒരു മാസത്തിനുള്ള ബില്ല് നമ്മൾ കൊണ്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ സാധനങ്ങൾ ഓട്ടോയിൽ ഇങ്ങട് വിട്ടോളും അപ്പം നമുക്ക് ബുദ്ധിമുട്ടില്ല പക്ഷേ പച്ചക്കറിയൊക്കെ വാങ്ങിക്കാനായിട്ട് ഞാനെപ്പോഴും പുറത്ത്ന്ന് ടൗണ്ന്ന് വരുമ്പോഴാണ് ഞാൻ വാങ്ങിക്യ ചില്ലറ കടേലാകുന്ന സമയത്ത് നല്ല വ്യത്യാസം വരും പുറത്ത്ന്ന് ടൗണ്ന്ന് വാങ്ങിക്കുന്നതാണ് നമുക്ക് കൂടുതൽ ആദായകരമായിട്ട് തോന്നിയിട്ടുള്ളത് പച്ചക്കറിക്ക് ഇപ്പോൾ നല്ല തീ പിടിച്ച വിലയാണ് ഒരു കിലോ വെളുത്തുള്ളിക്ക് മുന്നൂറ്റി നാൽപ്പത് വരെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എത്രയാണെങ്കിലും ടൗണ്ന്ന് വാങ്ങിക്കുന്ന സമയത്ത് നമുക്കതിൽ കുറച്ചെങ്കിലും ഇളവുണ്ടാവും അപ്പം ഞാൻ പലചരക്ക് സാധനങ്ങളെല്ലാം തൊട്ടടുത്തിട്ടുള്ള ചില്ലറ കടയിൽ നിന്നും പച്ചക്കറിയൊക്കെ ടൗണ്ന്നാണ് വാങ്ങിക്യ പിന്നെ ഓൺലൈനായിട്ട് നമുക്ക് വാങ്ങിക്കാം നല്ല ഭംഗിയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടും പക്ഷേ എന്റെ അഭിപ്രായത്തിൽ ഈ മൽസ്യം മാംസ്യം തുടങ്ങിയ സാധനങ്ങൾ ഒരിക്കലും നമ്മൾ ഓൺ ലൈൻ വാങ്ങിക്കാതിരിക്യാണ് നല്ലത് കയ്യിൽ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും അത് നല്ല പഴക്കമുള്ള സാധനങ്ങളായിരിക്കും ശീതീകരിച്ച് ഇങ്ങനെ സൂക്ഷിച്ച് വച്ച് നമുക്ക് തരുന്നത് ചിലപ്പോൾ നമ്മളോളം പഴക്കമുണ്ടായിരിക്കും അപ്പോൾ അതൊക്കെ നമ്മൾ മാർക്കറ്റിൽ പോയിട്ട് മീൻ മാർക്കറ്റിലോ അല്ലെങ്കിൽ മാംസ്യത്തിൻ്റെ മാർക്കറ്റിലോ പോയിട്ട് നേരിട്ട് വാങ്ങിക്യയാവും നല്ലത് ഈ ഒരു കേസ്സിൽ അത് നമുക്ക് ഫ്രഷ് ഐറ്റംസ് കിട്ടണമെന്നുണ്ടെങ്കിലെപ്പോഴും ഓൺലൈനെക്കാളും നല്ലത് ഓഫ് ലൈൻ തന്നെയാണെന്നാണ് എന്റെ ഒരഭിപ്രായം